ഇന്ത്യൻ വിദ്യഭ്യാസ സമ്പ്രദായത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കില് ഇന്ത്യയിൽ നാല് വ്യത്യസ്തമായ സിലബസ് ആണ് കുട്ടികള്ക്ക് പഠിക്കാനായിട്ട് ഉള്ളത് ഒന്ന് സ്റ്റേറ്റ് സിലബസ് സി ബി എസ് ഇ ഐ സി എസ് ഇ ഐ ജി സി എസ് ഇ ഇതില് ഏറ്റവും എളുപ്പമായത് ആണ് സ്റ്റേറ്റ് സിലബസ് പിന്നെ സി ബി എസ് ഇ കുറച്ചു കൂടി സ്റ്റേറ്റ് സിലബസിനേക്കാളും കുറച്ചു കൂടി ടഫ് ആണ് പിന്നെ ഒരു പാട് ടഫസ്റ്റ് എന്ന രീതിയില് വരുന്നത് ഐ സി എസ് ഇ ഐ ജി സി എസ് ഇ ഇന്ത്യയില് ഏറ്റവും കൂടുതലും കുട്ടികള് ചൂസ് ചെയ്യുന്നത് സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ് ഇ എന്നീ മൂന്നു സിലബസുകള് ആണ്

ഒരു സ്പൂണ് ഫീഡിംഗ് സിസ്റ്റം ആണ് അതായത് കുട്ടികളെ പറഞ്ഞു ഇതേ എക്സാമിന് വരത്തുള്ളൂ അല്ലെങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചാൽ മതി ഇതാണ് ഇംപോർട്ടന്റ് മോസ്ലി ടീച്ചര്സ് ഇംപോർട്ടന്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യന്സ് ആയിരിക്കും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുക അപ്പോൾ അവർ അതുമാത്രം കോണ്സന്ട്രേറ്റ് ചെയ്തു പഠിച്ചാണ് മുന്നേക്ക് പോകുന്നത് സി ബി എസ് ഇ ആയാലും ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വരെആയാലും ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് സിലബസ് ആണെന്നുണ്ടെങ്കില് ഒരു പത്താം ക്ലാസ് വരെയും ഇതേ സെയിം സിസ്റ്റമാണ് ഇംപോർട്ടൻസ് പറഞ്ഞുകൊടുക്കും അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും അതേ രീതിയില് അല്ലെങ്കില് അതേ പാറ്റേണില് തന്നെയുള്ള ക്വസ്റ്റ്യന് തന്നെയായിരിക്കും സ്റ്റേറ്റ് സിലബസില് വരുന്നത് പക്ഷെ സി ബി എസ് ഇ ല് ആണെങ്കിലോ ചിലപ്പോൾ എക്സാക്റ്റ് ക്വസ്റ്റ്യന്സ് തന്നെ ആയിരിക്കും വരുന്നത് പിന്നെ ഗൈഡ് ഇതിന്റെ ഒക്കെ സഹായത്തില് ആണ് കുട്ടികള് ഒരുപാട് പഠിക്കുന്നത് അപ്പോൾ ഈ കുട്ടികൾ കുട്ടികളുടേതായിട്ടുള്ള രീതിയിൽ ഓരോന്നും അന്വേഷിച്ച് കണ്ടെത്തി റഫർ ചെയ്ത് പഠിക്കുന്നില്ല അവർ അവരുടെതായിട്ടുള്ള എഫേര്ട്ട്സ് ഇടുന്നില്ല ഈ വിദ്യാഭ്യാസ അതായത് ഈ എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇന്ഡ്യയിലെ എജ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കുട്ടികള് അധികം കോണ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കില് നമുക്ക് പറയാം ഇപ്പോൾ സി ബി എസ് ഇ ആണെന്നുണ്ടെങ്കില് ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ആകുമ്പോഴേക്കും കമ്പ്ലീറ്റ് എക്സാം ഇടുന്നത് സെൻട്രൽ ബോർഡ് ആയിരിക്കും ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവര്ക്ക് എട്ടാം ക്ലാസ് മുതൽ ആ സെൻട്രൽ ബോർഡിലുള്ള എക്സാമിലേക്ക് ട്രെയിനിംഗ് തുടങ്ങും പക്ഷേ സ്റ്റേറ്റ് സിലബസ് ആണെന്ന് ഉണ്ടെങ്കിൽ ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റേറ്റ് സിലബസ് ആയിരിക്കും ഒരിക്കലും സ്കൂളിലെ പ്രിപ്പയർ ചെയ്ത എക്സാം ആയിരിക്കത്തില്ല അവർ അതായത് ക്വസ്റ്റ്യന് പേപ്പര് ആയിരിക്കത്തില്ല അവർ എക്സാം അറ്റന്ഡ് ചെയ്യുന്നത് അത് കൊണ്ട് ആ ഒരു ഫ്ലോയില് തന്നെ അവര് പത്താം ക്ലാസ് പോകും പ്ലസ് വണ്ണും പ്ലസ്ടുവും വലിയ വ്യത്യാസങ്ങളില്ല പക്ഷെ മാര്ക്കിങ്ങ് സിസ്റ്റം വരുമ്പഴേക്കും രണ്ടു സിലബസിനും രണ്ടു അല്ലെങ്കില് ഈ മൂന്ന് സിലബസിനും വളരെ യധികം ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കില് കുറച്ചു കൂടെ ലിബറല് ആയിട്ടുള്ള ഇവാലുവേഷൻ ആയിരിക്കും സി ബി എസ് ഇ ആണെന്നുണ്ടെങ്കില് സ്ട്രിക്റ്റ് ഇവാലുവേഷന് ആയിരിക്കും അതിനേക്കാളും നല്ല സ്ട്രിക്റ്റ് ഇവാലുവേഷനും കംപ്ലീറ്റ് സിലബസ് ചേഞ്ച് പോ തന്നെയായിരിക്കും ഐ സി എസ് ഇ യിലും ഐ ജി സി എസ്യി ഇ ലും കാണപ്പെടുന്നത് അപ്പോൾ പൊതുവേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ എജ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കുട്ടികൾ ഒരു ഒരു ക്ലാസ് വരെ അല്ലെങ്കിൽ ഒരു പ്രായം വരെ കുട്ടികൾ ഇടുന്നത് എഫേര്ട്ട് വളരെ കുറവാണ് അതായത് കുട്ടികൾ തനിയെ റിസർച്ച് ചെയ്യുന്നില്ല തനിയെ ഓരോന്നും കണ്ടുപിടിക്കുന്നില്ല എന്നൊക്കെ പണ്ടുള്ള കാലം വെച്ചു നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികള് കുറെക്കൂടി ബ്രില്ല്യന്റ് ആണ് അവരു തനിയെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് എല്ലാം ഇന്റര്നെറ്റിന്റെ ഉപയോഗത്തോട് കൂടിയാണ് പക്ഷേ എന്റെ ഒരഭിപ്രായത്തിൽ അതെല്ലാം സ്കൂളിൽ നിന്നും തുടങ്ങണം എന്നാല് അതിന് ഒരു റൂട്ട് ഉണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള രീതി കൃത്യമായിട്ടുള്ള രീതിയിൽ അവർ മുന്നേക്ക് പോകത്തുള്ളൂ ഇപ്പോൾ സ്കൂളിങ്ങ് ആണെങ്കിലും ഇപ്പോൾ സ്റ്റേറ്റ് സ്കൂളായാലും സിബിഎസ്ഇ സ്കൂളായാലും അപ്പോൾ സിബിഎസ്ഇ സ്കൂൾ എല്ലാം പ്രൈവറ്റ് മാനേജ്മെന്റ് ആയിരിക്കും സിബിഎസ്ഇ സ്കൂളിനെല്ലാം ഉണ്ടായിരിക്കുന്നത് പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും എടുക്കുന്നുണ്ട് പ്രൈവറ്റും എടുക്കുന്നുണ്ട് ഇപ്പോൾ ഗവൺമെന്റ് എടുക്കുന്നതിന്റെ പ്രത്യേകത എന്റെ ഒരു അഭിപ്രായത്തില് അല്ലെങ്കിൽ എന്റൊരു കാഴ്ചപ്പാടിൽ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ എടുക്കുന്നത് ഗവൺമെൻറ്റ് സ്കൂളുകളിലാണ് അതായത് ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചേർസ് എന്ന് പറയുന്നത് സെറ്റും നെറ്റും പാസായി സെറ്റും നെറ്റും എന്ന് പറയുന്നത് രണ്ടു എക്സാം ആ എക്സാം പാസായ ടീച്ചേഴ്സിനെ മാത്രമേ ഹയര് എജ്യൂക്കേഷന് വേണ്ടി കുട്ടികളെ പഠിപ്പിക്കാൻ ആയിട്ട് ഗവൺമെൻറ് അപ്പോയിൻമെന്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കുട്ടികൾ ആയിരിക്കും ഗവൺമെന്റ് സ്കൂളിൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ സിബിഎസ്ഇ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്കൂളില് ആ മാനേജ്മെന്റിന്റെ കീഴില് വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ റെക്കമെന്റേഷനിൽ വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ആണെങ്കിലും കുറഞ്ഞ ക്വളിഫിക്കേഷനുള്ള ടീച്ചേഴ്സിനെയും അവര് ജസ്റ്റ് അവർക്ക് പഠിപ്പിക്കാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്കൂളുകൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും നല്ല ടീച്ചേഴ്സ് ഗവൺമെൻറ്റ് സ്കൂളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഗവണ്മെന്റ് അതിന്റേതായിട്ടുള്ള എഫേര്ട്ട് കൂടുതലും കുട്ടികള്ക്ക് ഇടുന്നില്ല കുട്ടികള് അതിന് വേണ്ടി ഉള്ള ഒരു പ്രോത്സാഹനം കുട്ടികൾക്ക് കിട്ടുന്നില്ല സപ്പോർട്ട് അത് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ആയാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആയാലും പക്ഷേ പണ്ട് കാലങ്ങളിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുറെക്കൂടി മുന്നിലേക്ക് വരുന്ന കുട്ടികളെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കാൻ ഉണ്ട് പക്ഷേ പിന്നിലേക്ക് നിൽക്കുന്ന കുട്ടികൾ ഇപ്പോഴും പിന്നിലേക്ക് തന്നെ നിൽക്കുവണ് അപ്പോൾ ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കുറച്ചുകൂടി മെച്ചപ്പെട്ട കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ താഴേക്ക് പോകുന്ന കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ടീച്ചേഴ്സിന് ആയാലും ഗവൺമെന്റിന് ആയാലും എല്ലാവര്ക്കും സാധിക്കും പിന്നെ ഇവിടുത്തെ ഇന്ത്യയിലെ വേറൊരു കുഴപ്പം അല്ലെങ്കിൽ വേറൊരു പ്രശ്നം ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞാൽ കാശ് ഉള്ള കുട്ടികള്ക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കും അല്ലെങ്കില് നല്ല അഡ്മിഷൻ നല്ല സീറ്റ് ഇതെല്ലാം ലഭിക്കും ഇപ്പോൾ എം ബി ബി എസ്സായാലും എഞ്ചിനിയറിംഗിനു ആയാലും അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ മെറിറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് അവൈലബിലിറ്റി സീറ്റ്സ് മാത്രമേ കൊടുക്കത്തുള്ളൂ കുട്ടികളിലായാലും കാശ് ഉണ്ടെങ്കിലെ നല്ല വിദ്യാഭ്യാസം കിട്ടത്തുള്ളൂ എന്നൊരു മെന്റാലിറ്റി ഇക്കാലത്ത് ഡെവലപ്പായി വരുന്നുണ്ട് മുൻപ് ഇത്രയും ഇല്ലെങ്കിലും കാശ് ഉള്ള ആൾക്കാർ പഠിക്കും കാശില്ലാത്ത കുട്ടികൾ പിന്നിലേക്ക് പോകും എന്നൊരിത് പിന്നെ റിസര്വേഷന് റിസർവേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നമുള്ള ഒരു കാര്യവാണ് ഒരു ജനറൽ കമ്മ്യൂണിറ്റിക്ക് വേറൊരു മാർക്ക്ടി മേടിക്കണം എസ്സി എസ് ടി കമ്യൂണിറ്റിക്കാര് വേറൊരു മാര്ക്ക് മേടിക്കണം ഒ ബി സിക്കാര് വേറൊരു മാര്ക്ക് മേടിക്കണം ഈ വേറെ വേറെ വ്യത്യസ്തമായ മാർക്കുകൾ മേടിക്കുന്ന കുട്ടികൾ എല്ലാം ഒരു സ്ഥലത്ത് പഠിച്ചു അല്ലെങ്കിൽ ഒരേ പ്രായമുള്ള കുട്ടികൾ ആയിരിക്കും പക്ഷേ അവർക്ക് ഒരു കോമ്പറ്റിറ്റീവ് എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ മാർക്കുകൾ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ആന്സേഴ്സ് എല്ലാമായിരിക്കും കൊടുക്കുന്നത് പക്ഷേ ഈ പറയുന്ന ഈ മൂന്നു വിഭാഗത്തിലുള്ള കുട്ടികളും വ്യത്യസ്തമായിട്ടുള്ള മാർക്കുകൾ മേടിച്ചാൽ മാത്രമേ മുന്നിലേക്ക് കടന്നുപോകാനായിട്ട് പറ്റത്തുള്ളൂ അതായത് കട്ട് ഓഫ് മാർക്ക് ഒരാൾ സെവന്റി പെർസന്റേജ് ഒരു വിഭാഗം സെവന്റി പെർസന്റേജ് ലൈക്ക് സ്കോര് ചെയ്യണം മറ്റൊരു വിഭാഗം ഫിഫ്റ്റി പെർസന്റേജ് മറ്റൊരു വിഭാഗം വെറും ട്വന്റി ഫൈവ് പെർസന്റേജ് മാത്രം എടുത്താ മതി അവര്ക്ക് സീറ്റ് കിട്ടാനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങള് ഉറപ്പായിട്ടും കുട്ടികളുടെ മനസ്സിനെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനത്തെ കുറച്ചു കാര്യങ്ങൾ ഒക്കെ വിദ്യാഭ്യാസ മേഖല ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് കൊണ്ട് വരാം അല്ലെങ്കില് വെട്ടി കുറയ്ക്കാംഎന്ന് ഒരു അതായതു വെട്ടിമാറ്റാം എന്ന് ഉണ്ടെന്നുണ്ടെങ്കില് കുട്ടികള്ക്ക് കുറെക്കൂടി ആത്മവിശ്വാസം ഉണ്ടാവും അവരെ സ്കൂൾ ആയാലും ഗവൺമെന്റ് ആയാലും സഹായിക്കാന് എല്ലാവര്ക്കും എന്ത് തന്നെ വന്നാലും അവരെ മുന്നിലേക്ക് കൊണ്ടുപോകാന് ഗവൺമെന്റ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി മുന്നിലേക്ക് പോകാൻ പറ്റും പിന്നെ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള വര്ക്ക്സ് റിസേർച്ച് പ്രോജക്ട്സ് എല്ലാം സ്കൂൾ ടൈമി തന്നെ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങിയാലും അവരുടെ സ്കിൽസ് ഡെവലപ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം ഉള്ളത് നോളജ് നോളജ് ആവശ്യമാണ് മാത്രമല്ല സ്കിൽസ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തു കൊണ്ടുപോയാൽ മാത്രമേ ഇപ്പോഴത്തുള്ള കാലത്ത് മറ്റു രാജ്യക്കാരുമായിട്ടുള്ള കുട്ടികളുമായിട്ട് നമുക്ക് കൊമ്പറ്റീറ്റ് ചെയ്ത് നിക്കാന് പറ്റൂ ആവൂ